ഹലോ ഏജൻസി എന്നാ വിളിച്ചതെന്ന് വെച്ചാൽ എൻറ്റെ വീട് കുറച്ചുകൂടി വലുതാക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നെ അപ്പം നിങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വീട് പണിത് തന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പിന്നെ ഇതിനുള്ള കാര്യങ്ങൾ എന്നൊന്ന് പറയുകയാണെങ്കിൽ വീട് മുണ്ടക്കയം എന്ന് പറയും മുണ്ടക്കയം ഭാഗത്താണ്

മുണ്ടക്കയം സ്റ്റാൻറ്റിൻറ്റെ പുറകിലായിട്ട് വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഇപ്പോൾ നമുക്കത് കുറച്ചുകൂടി നീട്ടണമായിരുന്നു നമുക്ക് നിലകൾ കൂട്ടാനാണ് നമ്മൾ ആ അങ്ങനെയാണ് നമ്മൾ പ്ലാന് ഇട്ടേക്കുന്നത് മുറ്റമുണ്ട് നമുക്ക് അത് വിഷയം ഇല്ല നിലകൾ മാത്രം കൂട്ടിയാൽ മതി സൈഡിലോട്ട് വെക്കാനുള്ള അത്രയും ഇതില്ല ബഡ്ജെറ്റ് ഒരു നമുക്ക് ഒരു മാക്സിമം ഒരു മുപ്പത് ലക്ഷം അതിൽ കൂടുതൽ വേണ്ട ആ നമുക്കൊരു രണ്ട് നിലയിലും ആ രണ്ട് നില മണ്ടയിലോട്ട് ആ ആ ആ നമുക്ക് വീട് മാത്രം മതി ബാക്കി നമ്മൾ അഡീഷ്ണൽ ആയിട്ട് കോസ്റ്റ് ചെയ്തോളാം ആ

നമുക്ക് ഒരു രണ്ട് നില ഉള്ളത് കൊണ്ട് നമുക്ക് വീടിൻറ്റെ വലുപ്പം വെച്ച് ഒരു ഒരു പന്ത്രണ്ട് മാസം ഒരു വർഷംകൊണ്ട് ആ ആ ആ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ സാർ